ഇനി വളർന്നു വരുന്ന തലമുറകൾക്ക് അതാ യുവതലമുറകൾക്ക് തൊഴിലില്ലായ്മ എന്ന പ്രശ്നം വളരെ രൂക്ഷമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് അതിന് ഒന്നാമത്തെ കാരണമെന്ന് വച്ച് കഴിഞ്ഞാൽ സർക്കാർ അംഗി സർക്കാർ മേഖലയിലെ തൊഴിലവസരങ്ങൾ കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ് ആരോഗ്യ മേഖലയായിക്കോട്ടെ മറ്റ് സേവന മേഖലയായിക്കോട്ടെ ഇതിലൊന്നും സർക്കാറിൻ്റെ വിജ്ഞാപനങ്ങൾ പി എസ് സി വഴിയാണെങ്കിലും പിന്നെ കേ കേന്ദ്രത്തിൻ്റെ വകയാണെങ്കിലും വിജ്ഞാപനങ്ങളൊന്നും തന്നെ വരുന്നില്ല മാക്സിമം അവര് അത് പൂഴ്ത്തി വയ്ക്കപെടുന്നതാണ് തൊഴിൽ തൊഴിലുകളെല്ലാം പൂഴ്ത്തി വയ്ക്കുന്നതാണ് കസ് നമുക്ക് വേണ്ടിയിട്ടുള്ള തൊഴിലവസരങ്ങൾ അവര് കണ്ടെത്തുന്നുമില്ല നമ്മൾ കണ്ടെത്ത് നമുക്ക് പറ്റുകയുമില്ല അവര് തൊഴിലവസരങ്ങളൊന്നും വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നുമില്ല പിന്നെ മറ്റേ ഈ ഇവിടെ നാട്ടിലുള്ള തൊഴില് തൊഴിലാളികളെല്ലാം അന്യനാടുകളിൽ പോയിട്ട് കഷ്ടപ്പെടുകയും അന്യനാട്ടിലുള്ള ആൾക്കാര് ഇവിടെ വന്നിട്ട് കഷ്ടപ്പെടുകയും ചെയ്യുന്നു അത് മാറിയിട്ട് ഈ ഗൾഫിലെ നയം തന്നെ ഇവിടെയും വരണം ഈ നാട്ടിലുള്ള ആൾക്കാർ ഈ നാട്ടിൽ തന്നെ തൊഴിലവസരങ്ങൾ ഉണ്ടാവും അത് കണ്ടെത്തിയിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക അതാണ് വേണ്ടത് പിന്നെ മറ്റൊരു കാര്യം പ്ര പ്രധാനായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് കാർഷിക മേഖല അധപതനത്തിൻ്റെ വക്കത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റു ഇറക്കുമതി ചെയ്തിട്ടാണ് സാധനങ്ങള് ഇങ്ങോട്ടേക്ക് അയക്കുന്നത് അതിന് നല്ല കാർഷിക മേഖലയോട് താല്പര്യമുള്ള ആൾക്കാര് കാർഷിക മേഖലയിൽ ഇറങ്ങിയിട്ടുണ്ടേൽ തന്നെ പുതിയ തൊഴിലവസരങ്ങൾ അവർക്ക് മുന്നില് തുറന്ന് വരും പിന്നെ അതുപോലെ തന്നെ ഈ കാർഷിക മന്ത്രി അവരൊന്നും ഈ കാർഷിക മേഖലെയെ ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള തൊഴിലവസരങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും ഊന്നൽ കൊടുക്കുന്നില്ല എന്നാണ് പറയാനുള്ളത് പിന്നെ സേവനമേഖല സേവനമേഖലയില് രാഷ്ട്രീയപാർട്ടിൻ്റെ താല്പര്യപ്പെടുന്ന ആൾക്കാർ മാത്രമാണ് ഇരിക്കുന്നത് അല്ലാതെ സാധാരണക്കാരായ ആൾക്കാർക്ക് നല്ല പഠിപ്പും വിദ്യാഭ്യാസവുമുള്ള ആൾക്ക് സേവന മേഖലയിലൊന്നും തൊഴില് കിട്ടുന്നില്ല അതിൻ്റെ പ്രധാന കാരണം ഈ പാർട്ടിക്കാരാണ് പാർട്ടിക്കാർ അവരെ പിന്താങ്ങികൾക്കാണ് സീറ്റ് കൊടുക്കുന്നത് അപ്പോൾ അറിവില്ലാതെ അറിവില്ലാത്ത ആൾക്കാർ പോലും ഈ സേവനമേഖല കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് അതും ഈ അധപതനത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് പിന്നെ ബിസിനസ് മേഖല വ്യാപാര മേഖല ഇപ്പം ആകെ ഉയർന്നുവരുന്ന മേഖല ഈ വ്യാപാര മേഖലയാണ് പലതരത്തിലുള്ള വ്യാപാരങ്ങള് നടക്കുന്നുണ്ട് നല്ലതും നടക്കുന്നുണ്ട് അതല്ലാതെ നാർക്കോട്ടിസം അങ്ങനത്തെയുള്ള ബിസിനസും നടക്കുന്നത് അതിന് നല്ല ബിസിനസ് പ്രോത്സാഹിപ്പിക്കുകയും നല്ല വ്യാപാരങ്ങൾ മുന്നോട്ടു വരികയും അതായത് വേണ്ടാതെ നമുക്ക് നമ്മുടെ തലമുറയിൽ ദോഷമായി ബാധിക്കുന്ന വ്യാപാരങ്ങള് തടയുകയാണ് ചെയ്യേണ്ടത്